ചിത്രം വരയ്ക്കാനായിട്ട് ഞാന് ഓൺലൈനായിട്ടും ഓഫ് ലൈനായിട്ടൊക്കെ നോക്കാറുണ്ട് കൂടുതലും ഓൺ ലൈനാണ് പക്ഷേ എന്നാലും എന്താണ് ഇൻടേതായ രീതിയിലുള്ള മാറ്റങ്ങളക്കെ ഞാനതില് വരുത്താൻ അധികം ശ്രമിക്കാറുണ്ട് പിന്നെ ഓഫ് ലൈനായിട്ടും വരയ്ക്കാറുണ്ട് ഒന്നുങ്കൂടെ കൂടുതലായിട്ട് ഒരു ചിത്ര കലാകാരൻന്നക്കെ പറയുമ്പോൾ ഓഫ് ലൈനായിയിട്ടാണെന്തായാലും ചെയ്യുക ഒരു കലാകാരൻ എന്നുള്ളൊരു പേര് വരണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഭവനയിൽ തന്നെ ഞാൻ വരച്ചെടുക്കണം എനിക്കതാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ചിത്രം വരയ്ക്കാനും ഞാന് എടുക്കാറുള്ളത് കടലാസെടുക്കും പിന്നെ പെൻസില് മായ്ക്കാനുള്ള സാധനം പിന്നെ കട്ടറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കും പിന്നതുപോലെ തന്നെ വർണ്ണങ്ങള് നല്കാന് ചായങ്ങള് എടുക്കാറുണ്ട് എൻ്റ അനുഭവത്തില് കുറെ ചിത്രങ്ങള് ഞാൻ വരച്ചിട്ടുണ്ടെങ്കിലും എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഇങ്ങനെ പ്രകൃതിയക്കെ വരച്ച് വരുമ്പോളാണ് പിന്നേ ആളുകളൊക്കെ ഞാൻ വരക്കാൻ ശ്രമിച്ചിട്ട് ഉണ്ടെങ്കിലും പലതും നന്നായതുണ്ട് നന്നാവാത്തതൊക്കെ ഉണ്ട് പിന്നേ ആളുകളാൽ തന്നെ കിട്ടുന്ന സഹായം അതുപ്പോലെ തന്നെ കിട്ടുന്ന സന്ദേശങ്ങളക്കെയാണ് എൻ്റെ ജീവിതത്തില് എനിക്ക് സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ളത് അതൊക്കെ ഒര് ചിത്രത്തിലുൾപ്പെടുന്ന കാര്യങ്ങളാണ് പിന്നേ ചിത്രം വരച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് പിന്നേ